ചെടിയും മരങ്ങളും പുവൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഞാന് എൻ്റെ ഉള്ള സ്ഥലത്ത് ഞാന് കുറെ ചെടികള് നട്ടിട്ടുണ്ട് ചെടികള് രാവിലെയും വൈകീട്ടൊക്കെ ഞാൻ നനയ്ക്കും പിന്നതിനു വളമൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം നോക്കും പിന്നെ ഞാന് ഇടയ്ക്ക് ചെന്ന് നോക്കും പൂവ് ഇട്ട് നിൽക്കുന്നോ പിന്നേ കായ് ഉണ്ടായിട്ടുണ്ടോ എന്നോക്കെ അപ്പോൾ ഇടയിലൊക്കെ ചില പൂക്കളോ പൂവൊക്കെ വിരിഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ അതേപോലെ എന്റെ മുറ്റത്ത് രണ്ട് മൂന്ന് മൂചി ഉണ്ട് അത് പൂവിടുമ്പോഴും കായ്ക്കുമ്പോഴുമൊക്കെ ഭയങ്കര സന്തോഷമാണ് എനിക്കിഷ്ടമാണ് അതൊക്കെ നോക്കാനും കാണാ കാണുന്നതൊക്കെ